ഹലോ ഹലോ പറഞ്ഞോളൂ ആരാണ് സംസാരിക്കുന്നത് ആ അതെ അതെ പറഞ്ഞോളൂ

നിങ്ങൾ എത്ര എത്ര തുകയാണ് ഇപ്പോൾ ഫിക്സഡ് ഇടാൻ ഉദ്ദേശിക്കുന്നത്

ആ ആ അത് ശരി ആ പലിശ നിരക്ക് അല്ല പഴയ പോലെ അല്ല ഇപ്പം നല്ല പലിശ ഉണ്ട് പിന്നെ ബാങ്കിൽ വന്നിട്ട് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ് പിന്നേ താങ്കളിപ്പോൾ വർക്കെ ചെയ്യുവാണോ റിട്ടേർഡ് ആണല്ലേ എന്താണ് പേര് മോഹനല്ലേ ആ മോഹൻ സാറ് ഒന്നു കൊണ്ടും വിഷമിക്കേണ്ട നമ്മുടെ ബാങ്കിലേറ്റവും സേഫാണ് ഇവിടെ നമുക്ക് കുറേ ഫിക്സഡ് എമൗണ്ട്സൊക്കെയുണ്ട് അപ്പോ നമ്മുടെ ബാങ്കിൽ ഏറ്റോം കൂടുതല് എല്ലാ ബാങ്കിനെക്കാളും പലിശ നിരക്ക് കൂടുതലാണ് അതുകൊണ്ട് തന്നെ താങ്കൾക്ക് ധൈര്യമായിട്ട് നമ്മളെ ബാങ്കിൽ ഫിക്സഡ് വയ്ക്കാവുന്നതാണ് പിന്നെ പറഞ്ഞോളൂ പറ്റും പറ്റും തീർച്ചയായിട്ടും പിൻവലിക്കാം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയ്ൽസെല്ലാം താങ്കളെ ബാങ്കിൽ വന്നിട്ട് നമ്മൾ ഡീറ്റെയിലായിട്ട് സംസാരിക്കണം അപ്പോൾ നിങ്ങളേ ഞാൻ ഇന്നില്ല നാളെ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ വന്നാൽ മതി പന്ത്രണ്ട് മണിയാകുമ്പോൾ ഞാനുണ്ടാകും ആ ഇന്നൊരു മീറ്റിങ്ങിലാണ് അതുകൊണ്ടാണ് ആ അപ്പോൾ നാളെയൊരു പന്ത്രണ്ട് മണിയാകുമ്പോൾ വന്നോളു ശരി എന്നാൽ ശരി ഓക്കെ ഓക്കെ ശരി